ഞാന് മീഷോയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിഷ്ടമായ ഒരു ചുരിദാറ് നല്ല കളറും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാന് ഓർഡർ ചെയ്തു അത് ഒരാഴ്ച കൊണ്ട് വീട്ടിലെത്തി വീട്ടിലെത്തി കൊണ്ടു വന്നപ്പോൾ ഞാനത് പൊട്ടിച്ചു എങ്ങാണ്ടുന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അത് ഞാൻ വിചാരിച്ച കളറുമല്ല തുന്നലിനോക്കെ കുറെ ഫോൾട്ട് ഉണ്ട് അപ്പോൾ അത് ഞാന് അങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചയച്ചു